നമ്മുടെ ദേശത്ത് ടൂറിഷ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പല തരത്തിലുള്ള ക്ഷേത്രോത്സവങ്ങളും പള്ളി പെരുന്നാളുകളും ഉണ്ടാവാറുണ്ട് അതിൽ തന്നെ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് എടുത്ത്വാ പള്ളി പെരുന്നാളാണ് അവിടെ ഗീവർഗീസ് പുണ്യാളൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത് അത് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് മെയ് മാസം കാലം മെയ് മെയ് മാസമാണ് അത് നടത്താറുള്ളത് അതിൻ്റെ ആരംഭ ദിവസം എത്ര ഏറ്റവും നല്ല രീതിയിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൊടി ഉയർത്തുവാണ് ചെയ്യുന്നത് ആഘോഷത്തോടെ കൊടി ഉയർത്തുവാണ് ചെയ്യുന്നത് അത് അതിനു ശേഷമുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാന അവർ ചൊല്ലി വിശുദ്ധ കുർബാനയും പല തരത്തിലുള്ള പ്രാർത്ഥനകളും ചൊല്ലി പോരുന്നു ഈ പെരുന്നാളിന് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങളാണ് അവർ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കാൻ എല്ലാ വർഷവും അവിടെന്ന് ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അവിടെന്ന് അങ്ങനെ അവർ വരുന്നത് കൊണ്ട് തന്നെ അവർക്കായി പ്രത്യേകമായി തമിഴ് കുർബാനകളും അർപ്പിക്കാറുണ്ട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും എല്ലാം ഒരുക്കി കൊടുക്കുക കൊടുക്കാറുണ്ട് ഈ തിരുനാൾ ദിവസങ്ങളിൽ അതുമാത്രമല്ല അല്ല മറ്റ് നമ്മുടെ നമ്മുടെ നാട്ടിലെ ജനങ്ങളും എല്ലാവരും ഒട്ടുമിക്കവരും തന്നെ ഏറ്റവും കൂടുതൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണത് ഗീവർഗീസ് പുണ്യാളൻ്റെ തിരുനാളാണ് നമ്മൾ തന്നെ സമയം ആഘോഷിക്കുന്നത് എല്ലാ എല്ലാവരും തന്നെ പ്രത്യേകമായി ഗീവർഗീസ് പുണ്യാളൻ്റെ അടുത്ത് പോയി പ്രത്യേകമായി പ്രാർത്ഥിച്ച് ആവശ്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ച് പള്ളിക്ക് ചുറ്റും കല്ലെടുത്ത് നടക്കാനും നേർച്ചയുടെ പ്രാർത്ഥിച്ച് നടക്കാനും ഒക്കെയുണ്ട് ഇത് നമുക്ക് കാണാൻ സാധിക്കാറുമുണ്ട് മാത്രമല്ല നമുക്ക് നേർച്ച ഇടാനും നേർച്ച വാങ്ങാനും ഒക്കെത്തന്നെ പുണ്യാളച്ചൻ്റെ അടുത്ത് പോയി ചൊല്ലാനും വലിയ വലിയ ലൈനുകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഈ സമയങ്ങൾ ഈ ഗീവർഗീസ് പുണ്യാളൻ്റെ രൂപം വെ പള്ളിയിൽ ഏറ്റോം മുന്നിലായി എടുത്തു വെയ്ക്കാറുണ്ട് അതിനു മുമ്പ് വരെ അത് രൂപക്കൂട്ടിലായിരിക്കും വെക്കാറ് പക്ഷേ ഈ തിരുനാൾ സമയത്ത് ഈ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ രൂപം പള്ളിക്ക് ഏറ്റവും മുന്നിലായി എടുത്ത് വെക്കുന്ന ഒരു ചടങ്ങ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ തിരുനാളിൻ്റെ അവസാനം തിരുനാളിൻ്റെ അവസാന ദിവസം ആഘോഷമായി വിശുദ്ധ കുർബാനയ്ക്കു ശേഷം കൊയി കൊടി ഉയർത്തിയ കൊടി ആഘോഷമായി തന്നെ താഴ്ത്തുന്ന ഒരു ചടങ്ങും ഉണ്ടാവാറുണ്ട് തന്നെ മാത്രമല്ല ഈ തിരുനാൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കാവുന്ന സാധിക്കുന്ന ഒന്നാണ് ഇതുപോലെ തന്നെ നമ്മുടെ ദേശത്ത് ഏറ്റവും പ്രധാനമായി പറയാൻ നമുക്ക് പറയാൻ പറ്റുന്ന തിരുനാളാണ് അർത്തിങ്കൽ പള്ളിയിലെ പെരുന്നാൾ അർത്തിങ്കൽ പള്ളിയിലെ പെരുനാൾ മുണ്ടയ്ക്കൽ ചെതപ്പ് ഇവയെല്ലാം നമ്മുടെ ടൂറിസ്റ്റുകളെ ആഘോഷിക്കുന്ന ആകർഷിക്കുന്ന ഓരോരോ തിരുനാളുകളും ഉത്സവങ്ങളുമാണ്